ഹലോ സൂര്യാ റെസ്റ്റോറൻറ്റല്ലേ ആ ഓക്കെ ഞാൻ മറ്റന്നാൾ ഞങ്ങൾക്കൊരു ബർത്ത് ഡേ ഫംഗ്ഷനുണ്ട് അതിന് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അവിടെ എന്തൊക്കെയാണ് മെയിൻ ഐറ്റംസ് ഓ ഞങ്ങളൊരു പത്ത് പേരെ ഉള്ളു അപ്പോൾ ഒരു പതിനഞ്ച് പൊറോട്ടയും പതിനഞ്ച് ചപ്പാത്തിയും വേണം പിന്നെ ഏതൊക്കെ കറികളാണ് ഉണ്ടാവുക ഓക്കെ ഒരു മൂന്ന് ബട്ടർ ചിക്കൻ മൂന്ന് പനീർ ബട്ടർ മസാല പിന്നെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ മെയിൻ ഐറ്റമായിട്ടെന്താ ഉണ്ടാകുന്നത് കറികളിൽ ഓക്കെ ഓക്കെ ആ അത് രണ്ടെണ്ണം എടുത്തോള്ളൂ പിന്നെ കൂട്ടാൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചെരിവ് അധികം ഇട്ട് കഴിഞ്ഞ ഞങ്ങൾക്കെല്ലാവർക്കും അത് കൂടുതലിഷ്ടമാകും അപ്പോൾ കുറച്ച് എരിവ് അധികം വേണം പുളി അധികം വേണ്ട ഓക്കെ ഓക്കെ പിന്നെ റൈറ്റ് റൈസ് ഐറ്റംസ് എന്തൊക്കെയുണ്ട് ഓ ഓക്കെ ഓക്കെ എന്നാൽ ചിക്കൻ ബിരിയാണി ഒരു പത്തെണ്ണം എടുത്തോളു പിന്നെ നൂഡിൽസും വേണം നൂഡിൽസ് ഒരു പത്തെണ്ണം ഓക്കെ ഓക്കെ പിന്നെ ഡെസേർട്ട് ഐറ്റംസ് എന്തെങ്കിലും ഓക്കെ ഫ്രൂട്ട് സലാഡ് ഓക്കെ ഫ്രൂട്ട് സലാഡ് എടുത്തോളു അതൊരു പതിനഞ്ച് ഫ്രൂട്ട് സലാഡ് എടുത്തോളു ഓക്കെ ഞങ്ങൾക്ക് മറ്റന്നാളാണ് വേണ്ടത്കേട്ടോ മറ്റന്നാൾ രാവിലെ നിങ്ങളിവിടെ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് ഷൊർണ്ണൂരാണ് അപ്പോൾ നിങ്ങളിവിടെ ഷൊർണ്ണൂർ എത്തുമ്പോൾ ജസ്റ്റ് വിളിച്ചാൽ മതി ബസ് സ്റ്റാൻഡിൻറ്റെ അവിടെ അവിടേക്ക് ഞങ്ങൾ ബാക്കി അവിടെ നിന്ന് സ്ഥലം ഞങ്ങൾ പറഞ്ഞ് തരാം നിങ്ങളവിടെ എത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ ഈ നമ്പറാണ് എൻ്റെ സേവ് ചെയ്തോളു ഞാൻ വിളിക്കാം മറ്റന്നാൾ രാവിലെ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തിക്കില്ലേ എന്തായാലും ഓക്കെ ഓക്കെ ശരി എന്നാൽ